മലബന്ധം ഒഴിവാക്കാൻ നമ്മുടെ ജീവിത രീതി തന്നെ മാറ്റുക അതിന് ധാരാളമായിട്ട് കുടിവെള്ളം നമ്മൾ കുടിക്കുക ചെറു ചൂടുവെള്ളം നമ്മൾ കുടിക്കുക വെള്ളം കുടിക്കുക ചൂടുള്ളതോ കാർബോഹൈഡ്രേറ്റ് കലർന്നതോ ആയ വെള്ളം ഉറക്കം ഉണർന്ന ഉടനെ കുടിക്കുന്നത് ഏറെ നല്ലതാണ് അതുപോലെ കൂടുതൽ നാരുകൾ ഉൾപ്പെടുത്തുക നമ്മുടെ ഭക്ഷണ സാധനങ്ങളിൽ വിസർജനത്തിന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് നാരുകൾ മട്ട അരി പയർ ധാന്യങ്ങൾ നാര് നാരുകൾ ധാരാളമുള്ള പഴങ്ങൾ ധാന്യ ബ്രെഡ് കടല പരിപ്പ് ബീൻസ് ഇവയ പച്ചക്കറികൾ ഇവയെല്ലാം മലബന്ധം ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്നു അതുപോലെ ശാരീരിക പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നത് വ്യായാമം ചെയ്യുന്നത് ഏറെ നല്ല കാര്യമാണ് മഴവെള്ളം മലവെള്ളം മലബന്ധം ഒഴിവാക്കാനായിട്ട് നമുക്ക് അത് ഒത്തിരയേറെ സഹായിക്കുന്നുണ്ട് അതുപോലെ കഫീൻ നമ്മുടെ ജീവിതത്തിൽ കഫീൻ നമ്മൾ ഒഴിവാക്കുക കഫീൻ അടങ്ങിയ പദാർത്ഥങ്ങൾ നമ്മൾള് കഴിക്കുമ്പോൾ മലബന്ധം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അത് നമ്മൾ പരമാവധി ഒഴിവാക്കുന്നതാണ് ഏറ്റും നല്ലത് പ്രോബട്ടിക്ക് ഭക്ഷണങ്ങൾ കഴിക്കുക അതായത് തൈര് കിമ്മി എന്ന ഇത് പ്രോബയോട്ടിക് ഭക്ഷണമാണ് അത് നമ്മൾ ധാരാളമായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ നാരുകളാൽ സമ്പന്നമായ പ്ലം നമ്മൾ ധാരാളമായിട്ട് കഴിക്കണം മലബന്ധം വഷളാകുന്ന ഭക്ഷണ സാധനങ്ങൾ പ്രധാനമായിട്ടും മാംസം ഫാസ്റ്റ് ഫുഡുകൾ നാരുകൾ കുറഞ്ഞു വരുന്ന ഭക്ഷണങ്ങൾ അതെല്ലാം നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് മലബന്ധം കുറയ്ക്കാനായിട്ട് സാധിക്കും അതുപോലെ പാൽ ഉൽപ്പന്നങ്ങൾ നമ്മുടെ ജീവിത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ കഴിക്കാതിരിക്കുമ്പോൾ മലബന്ധം നമുക്ക് ഒഴിവക്കാനായിട്ട് സാധിക്കും ധാരാളം വെള്ളം കുടിക്കുകയും നാരുകൾ കലർന്ന ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് മലബന്ധം ഒഴിവാക്കാനായിട്ട് നമുക്ക് ഒരു പരിധി വരെ സാധിക്കും